ഹലോ അല്ലേ ആ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു ഈ വീടിൻ്റെ ഓടിൻറെ ഇവിടെ മുഴുവൻ പൊട്ടിയിരിക്കുവാണ് നല്ല ചോർച്ചയുണ്ട് മഴയൊക്കെ ആയതുകാരണം ഒട്ടും പറ്റുന്നില്ല അത് എത്രയും പെട്ടന്നൊന്ന് ചെയ്യാമോ അതെങ്ങനെയാന്ന് അറിയത്തില്ല അവിടെ ചോർച്ച നന്നായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ വിളിച്ചു നോക്കാം പിന്നെ ഈ പൈപ്പിനും ലീക്കേജുണ്ട് പ്രോപ്പറായിട്ടല്ല ചെയ്തേക്കുന്നത് എവിടെയൊക്കെയോ നല്ല ലീക്കേജുണ്ട് അതിൻറ്റേയും കുഴപ്പമുണ്ട് പിന്നെയീ ആ എന്നാൽ ഈ സ്വിച്ച് ബോഡിൻറ്റിവിടെയൊക്കെ ശരിക്ക് ചെയ്തിട്ടില്ല അപ്പം അത് സേഫായിട്ട് തോന്നുന്നില്ല ഒന്നും കൂടെ അതൊക്കൊന്ന് ശരിയാക്കിയിട്ട് ചെയ്ത് തരാമോ മഴയൊക്കെ ആ നേരത്തെ ഇപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നതിന് മുന്നേ നെരത്തെ ആരാണ് താമസിച്ചോണ്ടിരുന്നത് അവർ എപ്പോഴാണ് ഈ വീട്ടീന്ന് പോയത് ഇനി പുതിയ ഞങ്ങൾ വരുന്നതിന് മുന്നേ താമസിച്ചവർ കേടാക്കിയതായിരിക്കും എന്നാൽ അവർ പോകുന്നതിന് മുന്നേ അല്ല അപ്പം അവർ ശരിയാക്കാൻ അവർ പോയിക്കഴിഞ്ഞ് നോക്കിയില്ലായിരുന്നു വീടിനകം ഒക്കെ പിന്നെ ഭിത്തി

ഭിത്തിയിൽ മുഴുവൻ പടമൊക്കെ വരച്ചീ ക്രയോൺസിൻ്റെയെക്കെ വരയൊക്കെയുണ്ട് കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന ആ നിങ്ങളുടെ ഈ പിന്നെ എനിക്ക് ഇവിടുന്നൊരു പത്രം പത്രവും പാലോക്കെ വാങ്ങിക്കണമാരുന്നു അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന പത്രക്കാരൻറ്റെയും പാൽക്കാരൻ്റെ ഒക്കെയൊന്ന് നമ്പറും പിന്നെ ഈ ഹൌസ് നമ്മൾ മാസത്തിൽ കൊടുക്കണോ പൈസ അതോ പിന്നെ ഈ ഇവിടുത്തെ വീടിൻ്റെ ഈ ഈ വീടിൻ്റെ വാടകയും മാസത്തിലാണോ അതോ വർഷത്തിലാണോ അപ്പോൾ ഈ വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ഓൺലൈൻ പേമെൻറ്റാണോ അ ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ വീട് നോക്കിയിട്ട് വീട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടന്ന് തന്നെ താമസം മാറാം ഞങ്ങൾ ഇപ്പം വന്ന് നോക്കിയതെ ഉള്ളു അപ്പം ഒന്ന് നോക്കി പെയിൻറ്റും കൂടി അടിക്കണം കുറെ പിന്നെ വീടിനകത്ത് കുറെ ഫർണിച്ചറൊക്കെ കിടപ്പുണ്ടല്ലോ അത് ഞങ്ങൾക്ക് എടുക്കാവോ അതോ നിങ്ങൾ പണ്ട് തമാസിച്ചിരുന്നവരന്നാ കുഴപ്പമില്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ കുറെ ഫർണിച്ചറൊക്കെ ഉണ്ട് എന്നാലും ഇത് നിങ്ങളുടെ ആണോ അതോ ആ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് പഴയ സാധനങ്ങളിരിപ്പുണ്ട് പണ്ട് തമാസിച്ചവരുടെ ആണെന്ന് തോന്നുന്നു അവരോട് അതൊന്ന് എടുത്തിട്ട് പോകാൻ കൂടെ പറയണം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ പത്രക്കാരൻറ്റെം പാൽക്കാരൻറ്റെം നമ്പറും കൂടൊന്ന് തരണേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി